ഞാൻ കഥാപാത്രങ്ങള്ക്ക് രൂപം നല്കണത് തീര്ച്ചയായും സമൂഹത്തിൽ അറിയാതെ പോയ ഒരുപാട് മനുഷ്യരുണ്ട് അല്ലെങ്കില് നമ്മള് നമ്മള് പോലും അറിയാതെ ഒരുപാട് നല്ല സംഭാവനകള് ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് നല്ല ആളുകള് ഉണ്ടാവും അപ്പോൾ അവരില് നിന്നാണ് ഞാനോരോ കഥാപാത്രങ്ങള് എടുക്കുന്നത് അങ്ങനെ ചില തമാശ രൂപത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നല്ല സീരിയസ്നസ് ഉള്ള അത്യാവശ്യം നല്ല ദേഷ്യവും മറ്റും കാര്യങ്ങളുള്ള കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാറുണ്ട് കൂടുതലും സമൂഹമായും മനുഷ്യനുമായിട്ടും കൂടുതലും ഒരുപാട് അടുത്ത് നില്ക്കുന്ന മനുഷ്യരെയാണ് കൂടുതലായിട്ടും ഞാന് കഥാപാത്രങ്ങള് ആയിട്ട് എടുക്കാറുള്ളത് ഒരു ഒരുപാട് യഥാര്ത്ഥ സംഭവങ്ങള് ഉണ്ടായിരിക്കാം ആ ഒരു സംഭവത്തിനു പിന്നില് അല്ലെങ്കിൽ അതിനെ ആ ഒരു സംഭവം കാരണം ഒരുപാട് ആരോ സംഭവത്തിനു ഇരയായവര് അല്ലെങ്കില് എന്തെങ്കിലും പ്രശ്നമോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അതിനു ഇരയായവരുണ്ടാവാം അങ്ങനെ അങ്ങനെ ജീവനുള്ള കഥാപാത്രങ്ങളാണ് ഞാന് കൂടുതലും എഴുതുമ്പോള് ഞാന് കൂടുതലും അവതരിപ്പിക്കാറുള്ളത്